ഒന്ന് ഒൻപത് രണ്ടായിരത്തി മൂന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി മൂന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി നാല്